ഞാന് സ്കൂളില് പഠിപ്പിക്കുന്ന വിഷയം കണക്കാണ് ഞാന് കണക്കിൽ ബിരുദവും അതുപോലെ അധ്യാപന പരിചയവും നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ സ്കൂളിൽ അതൊരു സര്ക്കാര് സ്ഥാപനമല്ല പ്രൈ പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ഞാന് വര്ക്ക് ചെയ്യുന്നത് അപ്പം അവിടെ ഉള്ള എല്ലാ സ്റ്റാഫുകളും അതായത് അധ്യാപകരും അനധ്യാപകരും അവശ്യമുള്ളിടത്തോളം വിഷയങ്ങള് പഠിപ്പിക്കാനും എല്ലാത്തിനും അവര്ക്ക് ടെ അവരവരുടെ സബ്ജെക്ടിൽ ക്വാളിഫിക്കേഷന് ഉള്ളവരെ മാത്രമാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരുംതന്നെ ക്വാളിഫിക്കേഷന് ഇല്ലാത്തവര് ആരും തന്നെ ഈ സ്കൂളിൽ വര്ക്ക് ചെയ്യുന്നില്ല പിന്നെ ഞാന് എനി എനിക്ക് ഈ ബിരുദവും ബി എഡും ഉള്ളത് കണക്കിലായതുകൊണ്ട് എനിക്ക് കണക്ക് മാത്രമേ പഠിപ്പിക്കാൻ അവിടെ അനുവാദമുള്ളൂ വേറെ വിഷയങ്ങള് നമുക്ക് ഉള്ള ക്വാളിഫിക്കേഷന് ഉള്ള സബ്ജെക്റ്റുകള് മാത്രമാണ് വിഷയങ്ങള് മാത്രമാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നുള്ളൂ അല്ലാത്തപക്ഷം ഞങ്ങളുടെ സ്കൂൾ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല